ജീവിതത്തിൽ കലയ്ക്കുള്ള പ്രധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിലും ഒരു പാട്ട് പഠിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിലും ഒരു ഡാൻസൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീര വടിവ് ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും ഷെയപ്പിൽ ഇതുണ്ടാവും അതുപോലെ തന്നെ അവർക്ക് പിന്നെ ഈ ഡാൻസ് കളിക്കുന്നവർക്ക് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും അങ്ങന വല്ല അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല മെയ് വഴക്കം നല്ലോണം ഉണ്ടാവും പിന്നെ ശരീരത്തിന് നല്ല ഒരു സുഖം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെയാണ് ഈ പാട്ട് പഠിക്കുന്നവർക്ക് പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയുന്നവരും പാട്ട് പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നവർക്കും അതൊരു പ്രത്യേക തരം കഴിവാണ് നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിന് പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മനസ്സിന് ഒരു സുഖം സന്തോഷം അത് കിട്ടും അതുപോലെ തന്നെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നിലേക്ക് നമ്മളെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കും പിന്നെ ഒരു ഏതൊരു കലയിലൂടെയാണോ അവർ വളർന്ന് വന്നത് അവർ സമൂഹത്തിൽ അവർ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും ഏ അവഋക്ക് നാലാൾ അറിയും പിന്നെ അപ്പൊ അവരുടെ ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ എനിക്കും കളിക്കാമായിരുന്നു എന്നു പറഞ്ഞ് കൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കും കുറേ പേര് കാരണം അവരെ ഇഷ്ടപ്പെട്ടിട്ട് അവരെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടും സമൂഹത്തിൽ കുറേ പേർ കുട്ടികളായാലും ഇപ്പം അച്ഛനമ്മമാരായാലും അവരെ പോലെ എൻ്റെ മക്കളേയും ആക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ വളർന്നു വരും അപ്പോൾ അവരുടെ മക്കളേയും ഡാൻസായാലും പാട്ടായാലും നമ്മൾ പഠിപ്പിക്കാനും